ഹലോ ഇത് സൽമാൻ ഡോക്ടറാണോ ആ ഡോക്ടറേ എനിക്കൊരു കാര്യം പറയനായിരുന്നു ഡോക്ടറേ വിളിച്ചത് ഇന്നലെ ചെറി എൻ്റെ പേര് ബിന്ദു അപ്പം ഡോക്ടറേ പിന്നെ ഇന്നലെ ഒര് ചെറിയൊരു വണ്ടീന്ന് ചെറുങ്ങനെ ഒന്ന് വീണായിരുന്നെ സ്കു സ്കൂട്ടീന്ന് ആ അന്നേരം വലിങ്ങനെ ചെറുങ്ങനെ പിന്നെ തല ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ചെന്ന് നിലത്തു അടിച്ചാരുന്നു റോഡിലെ അപ്പം ഇന്ന് നോക്കുമ്പോൾ ഉണ്ട് നല്ല വേദനയുണ്ട് ഇ ഇല്ല കാണിച്ചില്ല അന്നേരം പിന്നെ സാര അത് വലിയ പ്രശ്നവില്ലായിരുന്നു എന്ന് തോന്നിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി ഇന്ന് നോക്കുമ്പോണ്ട് എനിക്ക് തലയ്ക്ക് ഇന്ന് നോക്കുമ്പോണ്ട് തലയ്ക്ക് നല്ലൊരു വേദന ഒക്കെയുണ്ട് ഡോക്ടറേ അപ്പോൾ ആ ചെർ വലിങ്ങനെ ഒന്ന് ചതഞ്ഞത് പോലെയുണ്ട്

ഒന്നും ചെയ്തിട്ടില്ല അന്നേരം എനിക്ക് വേദന ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അത് അത്ര കാര്യവാക്കിയില്ല ഇന്ന് രാവിലെ നോക്കുമ്പോണ്ട്

ആ ഞാനൊന്നും ചെയ്തില്ല ഡോക്ടറേ ഇന്നലെ ഇന്നലെ വൈകുന്നേരവായി വണ്ടി ഓടിച്ചിങ്ങനെ പോവുമ്പഴാണ് സംഭവിച്ചത് ഞാന് കോഴിക്കോട് പിന്നെ മു ഈങ്ങാപ്പുഴാന്ന് പറയും

ആ ആ ഡോക്ടറെ കാണാൻ പറ്റുമോ വന്നാല്

ആ ആ ഓ ശരി ഡോക്ടറെ അപ്പം സ്കാൻ ചെയ്യണ്ടി വരുവോ ആ ആ ആ അപ്പോൾ എങ്ങനെയാണ് ഞാന് ഡോക്ടറെ എപ്പഴാണ് കാ കാണാൻ പറ്റുക ഞാൻ ബുക്ക് ചെയ്യണോ

ആ ഓക്കെ ഡോക്ടറെ നാളെ ഈ ന്നാ ഇന്ന് വരണോ അതോ നാളെ വന്നാൽ മതിയോ നാളെ രാവിലെ വരട്ടെ എന്നാല് ആ വന്നിട്ട് ബുക്ക് ചെയ്യണോ ഓക്കെ ഡോക്ടറെ ഓക്കെ